നമ്മളിവിടെ ദക്ഷിണ ഭാരതത്തില് മേ മുഖ്യമായി നമ്മള് കാണുന്നത് മഴക്കാലം വേനൽക്കാലം

തണുപ്പ് ഉണ്ടാവുന്ന ആ സീസ ണാണ് വേനൽക്കാലം ആണ് ഇവിടെ കൂടുതലനുഭവി ക്കപ്പെടണ്ട വരുന്നത്

പരിതസ്ഥിതി അത്ര സൂക്ഷിക്കാത്തത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അവർ ആവശ്യത്തിന് വേണ്ടിട്ട് മരങ്ങൾ മുറിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് തണുപ്പ് സീസന് എന്ന് ഇല്ലേഇല്ല മുൻപൊക്കെ മഴ പെയ്യാൻ തുടങ്ങും മേ മാസത്തിൽ ത്തന്നെ പിന്നെ നവമ്പറ് വരെ ഒരു വിധത്തില് മഴ തന്നെ ഉണ്ടാവും നവമ്പർ മാസത്തില് തണുപ്പ് തുടങ്ങിയാല് ഫെബ്രുവരി മാസം വരെ നമ്മള് തണുപ്പാണ് അത് കഴിഞ്ഞാല് ഒരു

വേനൽക്കാലം തുടങ്ങാനാണ് ആവും ഇപ്പോൾ അങ്ങനെയല്ല നമ്മള് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യത്യാസങ്ങള് നമ്മള് കാണുന്നത് ഇപ്പോൾ തണുപ്പ് കുറെ കുറേശ്ശെ ഉണ്ടാവുന്ന സമയമായാലും ഇപ്പള് തന്നെ നമ്മള്ക്ക് വേനൽക്കാല പോലെ തന്നെ തോന്നുന്ന വിധത്തില് ചൂടെടുക്കുന്നുണ്ട് ഈ ചൂട് സഹിക്കാൻ ആവുന്നില്ല അതുകൊണ്ട് ആളക്കാറ് ഈ സമയത്തില് കൂടുതൽ തണുപ്പ് എങ്ങനെ കുറയ്ക്കാന് എന്തൊക്കെ വ്യവസ്ഥ ചെയ്യാന് സാധിക്കുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ആയത്ര ഏ സി ഉപയോഗിക്കാന് നോക്കുന്നുണ്ട് ചൂട് വെള്ളം ത്തില് കുളിക്കുന്ന ആള് ഇപ്പോൾ പച്ചവെള്ളത്തിലേക്ക് മാറി കഴിഞ്ഞു അത്പോലെ ചായ കോഫി കുടിക്കുന്ന ആൾക്കാറ് ഇപ്പോൾ തണ്പ്പ് പാനീയങ്ങൾ കുടിക്കാന് തുടങ്ങി ഈ സമയത്ത് ഇളനീര് ശർബത്ത് ഐസ്ക്രീമ് ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് എനിക്കു അതുതന്നെ നമ്മള് കൂടുതൽ വെള്ള കുടിക്കും കൂടുതൽ പച്ചവെള്ളം തണുപ്പ് വെള്ള ആയത്ര കുടിക്കും ശരീരത്തില് വേർപ്പുണ്ടാകും അത് എത്ര പുറത്ത് പോകുന്നോ അത്ര വെള്ളം ഉള്ളിൽ എടുത്തില്ലെങ്കിൽ അസുഖങ്ങള് വരാറ് സാധ്യതകളുണ്ട് അതുകൊണ്ട് എത്ര വെള്ളം നമ്മൾ ഈ സമയത്തില് കുടിക്കുന്നൊ അതുപോലെ അതു കുടിക്കണം അങ്ങനെയാണ് നമ്മള് ആരോഗ്യം നമ്മള് സൂക്ഷിക്കേണ്ടി വരുന്നത് സ് അങ്ങനെ സൂക്ഷിച്ചാല് ഇല്ലെങ്കിൽ ഈ സീസണിലാണ് നമ്മൾക്ക് ഡോക്ടറ് എവിടെ ഏത് ഹോസ്പിറ്റലിൽ പോയാല് ആവിശ്യത്തില് അധികം പേഷ്യൻസ്സ്കള് ഇപ്പോൾ കാണുന്നുണ്ട് ഈ ചൂട് കൊണ്ട് എപ്പോൾ നോക്കിയാലും പനിയും ചുമയും എല്ലാവർക്കും വരുന്നത് കൊണ്ട് ഈ സീസണില് ഡോക്ട്ടേഴ്സ്സ് സീസണെന്ന് നമ്മൾ പറയാറുണ്ട് അത്ര ബുദ്ധിമുട്ടുകള് അനുഭവിക്കുന്നുണ്ട് വേനൽക്കാലത്ത് അതുകൊണ്ട് വേനൽ കാലത്ത് എപ്പോയേ ഫ്രൂട്ട്സ്സ് ഫ്രൂട്ട് ജ്യൂസ്സ് അത് നല്ല ഡിമാണ്ടാണ് ആ ഫ്രൂട്ട് എല്ലാ വീട്ടില് പോയാല് നമ്മൾക്ക് ആദ്യം കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് തന്നെ നമ്മള് അതുതന്നെ ആക്കുന്നത് നാരങ്ങ വെള്ളം എപ്പളും വീട്ടില് നാരങ്ങ ഉണ്ടാവും നാരങ്ങാ വെള്ളം തന്നെ കൂടുതൽ കുടിക്കുന്നത് അത് തന്നെ ഇഷ്ടമാണ് ആൾക്കാർക്ക് അതുതന്നെ ഇഷ്ടമാണ് പിന്നേ എവിടെയെങ്കില് ടൂറ് പോവ് പോകാനുള്ള ഒരു ഇന്ററസ്റ്റ് ആൾക്കാരുണ്ടെങ്കിൽ ഈ സമയത്താണ് അവര് വെക്കാറുള്ളത് നോർത്ത് സൈഡില് നോർത്ത് ഇന്ത്യ അവിടെ തണുപ്പ് കൂടുതലെന്ന് അറിയാമല്ലൊ അതുകൊണ്ട് എല്ലാവരും ഈ സമയത്താണ് ഊട്ടി മുന്നാറ് അതുപോലത്തെ സ്ഥലത്തേക്ക് നോർത്ത് ജമ്മു കാശ്മീര് ആ സൈഡിലെല്ല ടൂറിൽ പോകുന്ന ആൾക്കാറ് ഈ സമയത്താണ് ടൂറ് വെക്കുന്നത് അവിടെ എല്ലാം ടൂറ് പോയിട്ട് അതിൻ്റെ ഇവിടെ അനുഭവിക്കുന്ന ചൂട് കുറച്ച് കുറയ്ക്കാന് ക്ഷമിക്കുന്നത് അത് വേനൽക്കാലായി പിന്നെ നമ്മള് മഴ വരുമ്പോൾ ഇവിടെ വന്നാല് പുറത്തിറങ്ങാൻ പറ്റില്ല ആൾക്കാർക്ക് അത്ര നല്ല മഴ പെയ്യും പെയ്യ്താല് അത്ര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് സ്കൂള്കൾക്ക് ചിലപ്പോൾ അവധി കൊടുക്കേണ്ടി വരും കുട്ടികളല്ല സാന്തോഷപെടും അവർക്കിഷ്ടമാണ് വെള്ളത്തില് കളിക്കാന് എങ്കിലും സ്കൂളുകൾക്ക് അവധി ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അത്ര നല്ല മഴ പെയ്യുന്ന ഏരിയാണ് നമ്മൾ ഈ ഏരിയ ഇപ്പം ഉള്ളത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മഴയുണ്ട് ആ മഴക്കാലത്തിലാണ് നമ്മള് കൂടുതല് വേനൽക്കാലത്തില് പപ്പടം എല്ലാം ഉണ്ടാക്കി വെക്കും അമ്മുമ്മമാരെല്ല ഉണ്ടാക്കുന്ന വി വിതത്തില് ചക്കയെല്ല പഴുക്കുന്ന സമയാണ് ചക്കത്തിൻ്റെ പപ്പടമോ വേറെ പപ്പടങ്ങള് എല്ലാം കുറെ വിധത്തിൻ്റെ തിൻ്റെ ടാപ്പിയോക്ക അതിൻ്റെ പപ്പടം കുറെ മരച്ചീനിയുടെ പപ്പടം ഇതൊക്കെ ഉണ്ടാക്കിവെക്കും മ മധുര കിഴങ്ങിൻ്റെ പ പപ്പട എല്ലാ പപ്പട നല്ലപോലെ യൂസ് ആവു ഈ മഴക്കാലത്തില് പുറത്ത് കഴിക്കാന് പോകാനൊന്നും ആകുന്നില്ലല്ലൊ അപ്പം വീട്ടിൽ കുട്ടികളെ വീട്ടിലിരുത്തി അവർക്കെന്തങ്കിലു വെറുതെ ഇരിക്കാനാവില്ല അതുകൊണ്ട് അവർക്കെന്തെങ്കില് തിന്നാന് വേണം ആ സമയത്ത് ഇതൊക്കെ നല്ലപോലെ വറുത്തിട്ടോ എണ്ണയില് വറുത്തിട്ടോ എങ്ങനെ അടുപ്പിൽ കനലിൽ അതില് അവർ ചൂടാക്കിയിട്ടോ എന്തെങ്കില് വെറൈറ്റി ആക്കിയിട്ട് അതെല്ലാം കൊടുത്താല് വലിയ ഇഷ്ടമാണ് അങ്ങനെയാണ് സമയ ആ സമയ നമ്മള് വേനൽക്കാലത്ത് നമ്മള് കുട്ടികള് എന്തെങ്കിലും പരിപാടികൾ എൻഗേജ് ചെയ്യണങ്കില് ഇത്പോലത്തെ സംഗതികൾ നമ്മള് വീട്ടില് ചെയ്യാറുണ്ട് മഴ പെയ്യുമ്പോൾ ഒര് സ്ഥലത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും

ബന്ധ ബന്ധുക്കളെല്ലാം ബന്ധുക്കളെല്ലാവരും ചിലപ്പോൾ ഒരു വീട്ടിലുണ്ടാവും ആ വീട്ടിലിരുന്നിട്ട് ഒരോരുത്തർക്ക് അവർക്കിഷ്ടമുള്ള വിഷയത്തില് ചർച്ചയോ കഥയോ പാട്ടോ ഇതെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഒറു ഗ്യാതറിങ് സോഷ്യൽ ഗ്യാതറിങ് പോലെ പരിപാടികൾ ആസൂത്രണമെല്ലാം ചെയ്യുന്നുണ്ട് പുറത്ത് പോകാനാവാത്തത് കൊണ്ട് പിന്നെ വേരെ ഫുഡ്ഡില്ല ആ സമയത്തില് ചില എല്ലാ പച്ചക്കറികളൊന്നും കിട്ടുകയില്ല എല്ലാ സാധനങ്ങളൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് വേനൽകാലത്തിലെ അതൊക്കെ സൂക്ഷിച്ചിട്ട് ഉണക്കിയിട്ട് ചില സാധനങ്ങള് വെക്കാനാകും മഴ വരുമ്പോൾ വെക്കുന്നതെന്ന് വെള്ളരിക്കയല്ല ചില വീട്ടില് വേനൽകാലത്തില് വാങ്ങിയിട്ട് അത് മഴക്കാലത്തില് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചിട്ട് വെക്കാനെന്ന പരിപാടി ഉണ്ട് പിന്നെ മുളക് അതൊക്കെ ഉണക്കിയിട്ടെല്ലാം എടുത്ത് വെക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ പുറത്ത് പോയിട്ട് സാധനം വാങ്ങണ്ട ആവശ്യം വരുന്നില്ല അത്ര നല്ല മഴ വരുന്നത് ഇവിടെ പുറത്ത് ഇറങ്ങണ്ടാന്ന് തോന്നും അതുകൊണ്ട് നമ്മള് ലീവെല്ലാം ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന ആള് ലീവെല്ലാം ഉണ്ടെങ്കില് ഈ സമയത്തിലാണ് ലീവെല്ലാം എടുത്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്ക് ഇരിക്കുന്നത് പിന്നെ തണുപ്പ് നമ്മള് ഇവിടെ അനുഭവിക്കുന്നത് കുറവാണ് നമ്മൾക്ക് തണുപ്പ് കുറവാണ് ഒന്നോ രണ്ടോ മാസത്തില് കുറച്ച് തണുപ്പുണ്ടാകും സ്വെറ്ററിൻ്റെ ആവിശ്യമൊന്നും വരുന്നില്ല ഇവിടെ അതുകൊണ്ട് തണുപ്പ് സീസണില് ഏ സീ ചാലു ചെയ്യ്തിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ തണുപ്പൊന്നും ഈസ് ഏരിയായില് ഇല്ല എങ്കിലും അതാണ് എല്ലാവർക്കും ഇഷ്ടവുമുള്ള ഒരു സീസണ് പറഞ്ഞാല് ഈ തണുപ്പുണ്ടാകുന്ന സീസണാണ് കുറച്ച് വിയർക്കുന്നത് കുറവല്ല അതുകൊണ്ട് ആ സീസണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സീസണാണ് എവിടെ പോകാനല്ല നല്ല മനസ്സിനൊരു സമാധാനമുണ്ടാകുന്ന സമയമാണ് വീട്ടിൻ്റെ ഉള്ളിലോ പുറത്തോ ഇരിക്കണമെന്നില്ല എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം മഴ വരുമ്പോൾ വീട്ടില് ഉള്ളിലിരിക്കും പിന്നെ വേനൽക്കാലം വരുമ്പോൾ ഇവിടെ പാർക്കില് പോകാൻ അതിന് ഇതിനെല്ലാം കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആള് തണുപ്പ് സീസൺല് വീട്ടിൽ തന്നെ അവർക്കിരുന്നിട്ടു സമയം ഇങ്ങനെ ചിലവാക്കാം അതുപോലെ ഇത് തണുപ്പ് സീസണില് കുറച്ച് എണ്ണയില് വരുത്ത സാധനമെല്ലാം നമ്മള് കൂടുതലാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഫാറ്റ് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഭക്ഷങ്ങളെല്ലാം ഉണ്ടാക്കും അതെല്ലാം നമ്മള് യൂസ് ഉപയോഗിക്കും കുട്ടികൾക്ക് കൊടുക്കും പിന്നെ ഇതുണ്ടല്ലൊ ചക്ക ആവുന്ന സീസണിൽ ആ ചക്ക എടുത്തിട്ട് ചക്ക ചുള ഉപ്പിലിട്ടെല്ലാം വെക്കാറുണ്ട് അതൊക്കെ നമ്മൾക്ക് ഈ മഴക്കാലം വരുമ്പോൾ ഭക്ഷ്യ സാധനങ്ങളുണ്ടാക്കിയിട്ട് തിന്നാനെല്ലാം ആകും അതല്ല നമ്മള് എല്ലാ വീട്ടിലും കൃഷിക്കാരെടെയെല്ലാം വീട്ടിലും അതുപോലുണ്ടാകുന്ന പതിവ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ പറഞ്ഞാല് തണുപ്പ് സീസണാണ് വേനൽ മാത്രം നമ്മൾക്കാർക്കും ഇഷ്ടമല്ല മഴ പിന്നെയു ആവാം വേനൽക്കാലമാണ് എല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു സീസൺ